ആ ഞാൻ കുറച്ചു ബുക്ക് ഇവിടെ അഡ്മിഷൻ ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ഇല്ലില്ല മുൻപെവിടേയും എടുത്തിട്ടില്ല

ആ ഇവിടെത്തന്നെ പാലക്കാട് തന്നെ ആ അതെ പരിധിയിൽ തന്നെയാണ് ഞാനിപ്പോൾ പഠി വർക്ക് ചെയ്യുവാണ് അതിൻ്റെടേല് ഇടക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ബുക്കൊക്കെ എടുക്കണം വായിക്കണം റീഡിങ് ഒക്കെ ഭയങ്കരിഷ്ടമാണ് അപ്പോൾ അത് മാസമാണോ

ഓക്കെ അപ്പോൾ ഇത് വർഷത്തില് ഇയർലീടെ എമൗണ്ട് ഇത് ചേരുമ്പോൾ എക്സ്ട്രാ വേറെ ഏതേങ്കിലും കെട്ടിവെക്കണോ അങ്ങനെന്തെങ്കിലും

അതെ അല്ലെ ഓക്കെ അപ്പം നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ഇതൊക്കെയാണല്ലോ ഇനി നമ്മളിനി ഇത് ഇനിയിപ്പോൾ വേണ്ട ഇവിടുന്ന് വരണില്ല പറഞ്ഞിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എമൗണ്ട് തിരിച്ചുകിട്ടുവോ

ആ ഓക്കെ ആ ആ അപ്പം നമ്മള് ക്ലോസ് ചെയ്യണേ അടക്കണ്ട നമ്മള് നിർത്തുവാണെങ്കിൽ അതുവരെ അടക്കണം ആല്ലേ അതുവരെ അടക്കണം ഓക്കെ

ഓക്കെ ഇപ്പം ഇവിടെ എത്ര മണി തൊട്ടെത്ര മണി വരെ ഓപ്പണും ക്ലോസിംഗ് ഒക്കെ അതെ അല്ലെ ഓക്കെ അപ്പം നമുക്ക് ഇവിടെ എല്ലാ ബുക്കും അവൈലബിൾ ആണല്ലേ ഓക്കെ അതെ അല്ലേ ഓക്കെ ഓക്കേ ഈ ഈ നോവൽ ടൈപ്പ് ആണ് ഈ മ് നോവൽ ടൈപ്പ് ആണ് നോക്കുന്നത് നാലുകെട്ട് അതുപോലത്തെ നാലുകെട്ട് അതേപോലെ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയെ ബാല്യകാലസഖി മ് മ്

ഓക്കെ ഞാനിപ്പോൾ ഇപ്പോൾ എനിക്കീ രണ്ടു ബുക്ക് മതി ഇത് ബാല്യകാലസഖിയും നാലുകെട്ടും വി ടി വാസു എം ടി വാസുദേവൻ നായരിൻ്റെയെ ഓക്കെ ഓക്കെ ഞാനിപ്പം അവിടുന്നെടുക്കാം അല്ലെ ഓക്കെ ഇതിപ്പം എപ്പം കൊണ്ടുവന്നുതരണം അതെ അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഇനി എന്തൊക്കെയാണ് വേണ്ടത്

അത് തരാം ഓക്കെ മ് ഓക്കെ ഓക്കേ ഓക്കെ ഓക്കേ ശരി അപ്പോൾ മ് ഓക്കെ ശരി ശരി